എൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റെന്നു പറയുന്നത് ഒരു മൊബൈൽ ഫോണായിരുന്നു ഒരു റെഡ്മിയുടെ ഒരു മൊബൈൽ ഫോണായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റ് അതിലെനിക്ക് വളരെ കൂടുതലും പോസിറ്റീവ് എക്സ്പീരിയൻസാണ് ഉള്ളത് വളരെക്കാലം എനിക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞു ഇതിൻ്റെ പ്രധാന പോസിറ്റീവ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊസസ്സിങ് തന്നെയാണ് വളരെ സ്പീടുള്ളൊരു പ്രൊസസ്സറായിരുന്നു അതിൽ അതുകൊണ്ടുതന്നെ ഫോൺ ഹേങ്ങാവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതു പോലെ അതിൻ്റെ മറ്റൊന്ന് ചാർജിങ് ചാർജിങ് വളരെ നല്ല ഫലപ്രദമായ ഒരു ചാർജിങ്ങായിരുന്നു അതിൻ്റെ ബാറ്ററി ഒരു നാലായിരം എം എ എച്ചിൻ്റെ ആയിരുന്നു കാരണം അത് രണ്ടു ദിവസം എങ്കിലും ചാർജ് നിൽക്കുന്നൊരു ബേറ്ററി ആയിരുന്നു യൂസ് ചെയ്താലും ഒരുപാടു നേരം ചാർജ് നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ അടുത്ത ഒന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോറേജ് വളരേയധികം നല്ല സ്റ്റോറേജ് കപാസിറ്റിയുള്ളൊരു മൊബൈൽ ഫോണായിരുന്നു അത് അതുപോലെ അതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ മികച്ചൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ആയിരുന്നു ആ ഫോണിൻ്റേത് പിന്നെയുള്ളത് ക്യാമറ ക്യാമറയും വളരെ മികച്ചതായിരുന്നു നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൊബൈൽ ഫോണായിരുന്നു അത് പിന്നെ അതുപോലെയാണ് അതിൻ്റെ സ്പീക്കർ സൗണ്ട് ക്വാളിറ്റി മികച്ചതായിരുന്നു എന്താ പറയുക പാട്ട് കേൾക്കാനാണെങ്കിലും നമുക്ക് സംസാരിക്കാനും എല്ലാറ്റിനുമുള്ള സ്പീക്കർ വളരെ മികച്ചൊരു സ്പീക്കറായിരുന്നു